വിദ്യാലയങ്ങളിൽ കലയും കരകൗശലവും വിദ്യാര്ഥികളെ പഠിപ്പിക്കുന്നതിനായിട്ട് അവര്ക്ക് ആര്ട്ടാന് ക്രാഫ്റ്റ് പിരീട്സ്സുണ്ട് അപ്പം ആ അത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ അല്ലേൽ ഒരു പ്രാവശ്യമോ നിര്ബദ്ധമായും സ്കൂളുകൾ കണ്ടക്ററ് ചെയ്യുന്നുണ്ട് അപ്പം അതുവഴി അവർ പൂക്കളുണ്ടാക്കാനും വരയ്ക്കുവാനും ഇപ്പോൾ പേയിന്റ് ചെയ്യാനുമെല്ലാം അവർ പഠിക്കുന്നു പിന്നെ അല്ലാതെ നമ്മുടെ കാലത്തക്കെ കുഞ്ഞ്ക പ്രായത്തിൽ നമ്മൾ സ്കൂളുകളിലിതൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കര ആര്ട്ടാന് ക്രാഫ്റ്റ് പീരിടുണ്ടെങ്കിലും നമ്മൾ കൂട്ടുകാരില് നിന്നും കുടുംബ അംഗങ്ങളില് നിന്നും ബോട്ട് പേപ്പറ് കൊണ്ട് ബോട്ടുണ്ടാക്കുക അത് മഴക്കാലം വരുമ്പോള് വെള്ളത്തിൽ ഒഴുക്കിവിടാന് പഠിക്കുന്നു കളിക്കുന്നു പിന്നെ ഓല കൊണ്ട് പീപ്പി ഉണ്ടാക്കുന്നു വാച്ചുണ്ടാക്കുന്നു ബോളുണ്ടാക്കുന്നു ബാസ്ക്കറ്റൊണ്ടാക്കുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്